ഹലോ ഇത് ബിസ്മി ഹോട്ടലല്ലെ ആ കുറച്ച് ഫുഡ്ഡ് വേണമായിരുന്നു രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരു വെജ് നൂഡിൽസ് ഒരു ബെർഗർ പിന്നെ രണ്ട് മിൽക്ക് ഷെയ്ക്ക് ഇത്രയും വേണമായിരുന്നു പിന്നെ ഡിലേ ആവരുത് കാരണം ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത സമയത്ത് കുറച്ച് താമസിച്ചാണ് കൊണ്ടു വന്നത് ഇപ്പോൾപ്പിന്നെ പെട്ടന്ന് വേണം കാരണം നല്ല വിശപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ലൊക്കേഷൻ ഞാനയച്ച് തരാം പിന്നെയെന്താണെന്നു വച്ചാൽ കിഴിവൊക്കെ ഉണ്ടെങ്കിൽ പറയണം കാരണം ഞാൻ ഡെയ്ലി വാങ്ങിക്കുന്ന സ്ഥിരം കസ്റ്റമറാണ് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കേ